എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നതിനായി ആദ്യം ഇ പി എഫ് ഒയുടെ സൈറ്റിൽ കയറുകയും അതിൽ പേര് രജിസ്റ്റർ ചെയ്യുകയും അതോടൊപ്പം വ്യക്തിഗത വിശദാംശങ്ങൾ നൽകുന്ന അവയുടെ തെളിവുകളായ ആധാർ റേഷൻ കാർഡ് വോട്ടർ ഐ ഡി എന്നിവയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകുകയും അതോടൊപ്പം ജോലി തൊഴിൽ തൊഴിൽ വിവരങ്ങൾ നൽകുന്ന തൊഴിൽ ചെയ്യുന്ന മേഖലകളിലെ വിശദാംശങ്ങൾ നൽകുന്ന രേഖകൾ സമർപ്പിക്കുകയും അതോടൊപ്പം അതുവഴി തന്നെ അതിൽ രജിസ്റ്റർ ചെയ്യുകയും ഒരു ജീവനക്കാരനാണെന്ന കൃത്യമായി തെളിവ് നൽകുന്ന രേഖകൾ സമർപ്പിക്കുക വഴി അതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു